കായിക വിനോദങ്ങൾ നമ്മളെ പിരിമുറുക്കങ്ങൾ മാറ്റാനും ആസ്വദിക്കാനുമുള്ള ഒരു വഴിയായിട്ട് മാറുന്നുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ പല കഴിവ് കായിക വിനോദനം വിനോദ വിനോദങ്ങളിലും നമ്മളേർപ്പെടുമ്പോൾ നമ്മളെ കുറേയൊക്കെ ടെൻഷനും ഒക്കെ മാറി കിട്ടാറുണ്ട് നമ്മളെ മീൻസ് ആ ഒരു ഫ്രഷ്നസ്സ് കിട്ടാറുണ്ട് നമുക്ക് നമുക്ക് നമ്മുടെ മൈൻഡ് ആകെ ഒരു ചേയ്ഞ്ച് ആവാനും വേറെ കാര്യങ്ങളിൽ നമുക്ക് ഏർപ്പെടാനും ഒക്കെ വളരെ അധികം സഹായിക്കുന്നുണ്ടത് പിന്നതുപോലെ തന്നെ നമുക്കത് കൂടുതൽ നമ്മൾ നമ്മളൊരു കായികവിനോദത്തിൽ നമ്മളേർപ്പെട്ടാൽ നമുക്കതിനോടുള്ള താൽപ്പര്യം നമുക്ക് എത്രമാത്രം ഉണ്ടോ അത്രത്തോളം നമുക്ക് ആ ഒരു കായികവിനോദത്തെ നമുക്കും ആസ്വദിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് അപ്പോൾ ഇപ്പം എന്താണെങ്കിലും ഇപ്പം കായിക വിനോദന വിനോദങ്ങളിൽ സ്പോർട്സായാലും അതേപോലെ തന്നെ കായികവിനോദങ്ങളിൽ അതായത് ക്രിക്കറ്റ് ഫുട്ബോള് അങ്ങനെയുള്ള എന്ത് കാര്യമാണങ്കിലും ഇപ്പോൾ അഥവാ ഒരു ഓട്ടമത്സരം ആണെങ്കിലും എന്താണെങ്കിലും നമ്മളത് ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ നമുക്കത് നല്ലതുപോലെ ആസ്വദിക്കാൻ വേണ്ടി പറ്റും എത്രത്തോളം നമ്മളത് ആസ്വദിക്കുമ്പോൾ നമുക്ക് ബാക്കിയുള്ള എന്ത് ടെൻഷനുകൾ ഉണ്ടെങ്കിലും നമ്മൾക്ക് അതിൽ നിന്നൊരു സന്തോഷം കണ്ടെത്താൻ വേണ്ടി പറ്റുന്നുണ്ട് നമ്മളാ മൈൻഡ് ആകെ ചെയ്ഞ്ച് ആവും അങ്ങനെ കായികവിനോദങ്ങളിൽ ഏർപ്പെട്ടാൽ ഇപ്പം കായികവിനോദങ്ങളിൽ ഏർപ്പെടുന്നതിനുള്ള അതുകൊണ്ടുള്ള ഏറ്റവും വല്ല്യ ഗുണം എന്ന് പറഞ്ഞാൽ അത് നമ്മളെ ഹെൽത്തിന് കിട്ടുന്ന ഒരു ഗുണമാണ് നമ്മളൊന്നും ചെയ്യാതെ നമ്മളെ ശരീരം വളക്കാതെ നമ്മൾ നമ്മളെ ശരീര ഇളക്ക് മീൻസ് ശരീരം കൊണ്ട് ഒന്നും ചെയ്യാതെ ഇരിക്കുമ്പോൾ നമക്കത്രയും നമ്മളെ ഫാറ്റടിഞ്ഞു കൂടുകയും നമ്മൾ നമുക്ക് മടി കൂടുകയും ഒന്നും ചെയ്യാനുള്ള ഒരു താൽപ്പര്യം ഇല്ലാണ്ടാവുകയാണ് ചെയ്യുന്നത് അപ്പം അത് അതൊക്കെ മറി കടക്കാൻ വേണ്ടീട്ട് ഇത്തരത്തിലുള്ള സ്പോർട്സ് നമ്മളെ നല്ലോണം സഹായിക്കുന്നുണ്ട് നാം നമ്മളങ്ങനെ പല കാര്യങ്ങളും എക്സർസൈസ് ആണങ്കിലും എന്താണങ്കിലും നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ നമ്മളെ ബോഡി അത്രയും ആ ഒരു ഫിറ്റായി നിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് നമ്മൾ നമ്മൾക്കെന്താണോ ചെയ്യണേ നമുക്കെന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് എന്തെങ്കിലും എന്ത് ചെയ്യാനാണെങ്കിലും എന്തെങ്കിലും വെയിറ്റെടുക്കാനാണെങ്കിലോ എന്താണെങ്കിലും നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി നമുക്ക് വരുന്നില്ല നമ്മൾക്ക് തന്നെ അത് പറ്റും ഒന്നും ചെയ്യാണ്ടിരിക്കുമ്പഴാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റാണ്ടായി പോകുന്നത് അപ്പോൾ കുറേ ഒക്കെ കായികവിനോദങ്ങളിൽ ഏർപ്പെടുമ്പോൾ നമ്മൾ ബോഡി നല്ല ഫിറ്റാവുന്നുണ്ട് ഫിസിക്കലായിട്ടുള്ള എന്ത് കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും അതൊക്കെ നല്ലൊരു കാര്യം തന്നെയാണ് അത് ആസ്വദിച്ച് ചെയ്യുമ്പോഴാണ് കൂടുതല് നമുക്കതൊരു ഇൻട്രസ്റ്റായിട്ട് തോന്നുന്നത് അപ്പോൾ ഹെൽത്തിന് തന്നെയാണ് അതേറ്റവും ഗുണം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സ്പോർട്സ്കൾ ഏറ്റവും ഗുണം ചെയ്യുന്നത് നമ്മള് ഹെൽത്തിന് തന്നെയാ ഹെൽത്തിന് ഹെൽത്തിന് തന്നെയാണ് ഇപ്പം നമുക്ക് എത്ര ഏജ്ഡ് ആണങ്കിലും അങ്ങനൊരു സ്പോർട്സ് അത് ആ ഒരു കഴിവ് നമുക്കുണ്ടെങ്കിൽ നമുക്കത് നമ്മുടെ ഏജ് എത്ര ഏജ്ഡ് ആണെങ്കിലും നമുക്കത് ചെയ്തു കൊണ്ടേ ഇരിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അങ്ങനെ കുറേ കാലം അത് ചെയ്യുമ്പോൾ തന്നെ നമ്മളെ ബോഡിയ്ക്കുതന്നെ അതൊരു നല്ലതുതന്നെയാണ് അപ്പോൾ എത്ര ഏജ് ആണെങ്കിലും നമുക്ക് പെട്ടെന്നാ ഒരു എനിക്കിത്ര ഏജായി ഒന്നും പറ്റുന്നില്ലാന്ന് ഉള്ളൊരു അവസ്ഥയിലേക്ക് നമുക്ക് എത്തിപ്പെടേണ്ടി വരുന്നില്ല അത്രയും നമുക്ക് നമ്മളെ എത്ര ഏജാണെങ്കിലും നമുക്ക് സ്വയം അന്തക്കെ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ആ ഒരു കരുത്ത് നമുക്ക് നമുക്ക് കുറേ ഏജാവുമ്പോഴും നമുക്കുണ്ടാവും മീൻസ് അത്ര ഫിറ്റായതുകൊണ്ട് നമ്മുടെ ബോഡി നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ആരെയും ആശ്രയിക്കാതെ തി ചെയ്യാൻ വേണ്ടി പറ്റും ഇങ്ങനൊരു കായികവിനോദങ്ങളിൽ നമ്മളേർപ്പെടുമ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള കായികവിനോദങ്ങൾ നമ്മളെ പിരിമുറുക്കങ്ങൾ മാറ്റാനും ആസ്വദിക്കാനുള്ള ഒരു വഴിയായിട്ട് അത് മാറ്റുന്നുണ്ട് പിരിമുറുക്കങ്ങൾ അതായത് നമുക്കുള്ള നമ്മുടെ ജീവിതത്തിലുള്ള പല ടെൻഷനുകളും ടെൻഷനുകളും അതേപോലെ തന്നെ പല ബുദ്ധിമുട്ടുകളും ഒക്കെ നമ്മളങ്ങനൊരു ഒരു കാര്യത്തിലേക്ക് നമ്മളേർപ്പെടുമ്പോൾ ബാക്കി എല്ലാം നമ്മൾ നമ്മളെ മൈൻഡിൽ നിന്ന് പോവുകയാ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമ്മൾ കോൺസൻട്രേറ്റ് ചെയ്യുമ്പോൾ ഇത്തരത്തില സ്പോർട്സ്സിലെ കോൺസൻട്രേറ്റ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള ടെൻഷനുകളൊന്നും നമുക്കൊരു ബാധ്യത ആയിട്ട് നമുക്കൊരു ടെൻഷനായിട്ട് നമുക്ക് തോന്നില്ല ആ ഒരു സമയത്ത് അപ്പം അത്തരത്തിൽ കായികവിനോദങ്ങളിൽ ഏർപ്പെടുന്നത് നല്ലത് തന്നെയാണ് മീൻസ് നമ്മളെ ബ്രെയിൻ ഒന്ന് ഫ്രഷ് ആകുകയാ ചെയ്യുന്നത് നമ്മളെ ബാക്കി എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നമ്മളെ ബ്രെയിനതൊരു എന്താ പറയുക ആ ഒരു ഫ്രഷ്നസ്സ് നമുക്ക് നിലനിർത്താൻ വേണ്ടീട്ട് പറ്റും അപ്പം അതുകൊണ്ട് കായികവിനോദങ്ങൾ പിരിമുറുക്കങ്ങൾ മാറ്റാനും ആസ്വദിക്കാനും ഉള്ളൊരു വഴി ആയിട്ട് മാറുക തന്നെ ചെയ്യുന്നുണ്ട് അത് ആസ്വദിച്ച് ചെയ്യുമ്പോൾ നമുക്കതിൽ നിന്ന് സന്തോഷം കണ്ടെത്താൻ വേണ്ടീട്ട് പറ്റും